ഇരുപത്തേഴ് ആറ് രണ്ടായിരം പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത് ഇരുപതേ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന്